എൻ്റെ സഹോദരി അല്ലെങ്കിൽ എൻ്റെ മകൾ ഇനി അഥവ ഇനി എൻ്റെ എൻ്റെ സുഹൃത്തായിക്കോട്ടെ ആരായാലും വിദ്യാഭ്യാസം അവൾക്ക് എത്രത്തോളം വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം അവൾ നേടിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പറ്റുമെങ്കിൽ അവളൊരു ഗവൺമെൻട് ജോലി അല്ലെങ്കിലവൾക്ക് മതിയാകുന്ന സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടുന്നതു വരെയുള്ള എജ്യൂക്കേഷനവൾക്ക് നൽകണം എന്നുള്ളതാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു മകൾ വളർന്നുവരുന്നൊരു മകളുണ്ട് അവളുടെ കാര്യം ഞാൻ ഇപ്പം നോക്കി വരുന്നത് അവൾക്ക് എത്രത്തോളം അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വിദ്യാഭ്യാസം അവൾക്കു കൊടുക്കണം അവൾടെ കല്ല്യാണം പോലും അവൾക്കൊരു ജോലി കിട്ടിയാൽ കിട്ടികഴിഞ്ഞതിന് ശേഷം മാത്രം മതിയെന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്താണ് വിദ്യാഭ്യാസത്തിൽ കാല കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധവേണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം അവർക്ക് വിദ്യഭ്യാസത്തിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന പല സമൂഹങ്ങളും നമുക്ക് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ട് വരുന്നത് അത് കൊണ്ടു തന്നെ വിദ്യഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും സഹാജ് സാഹചര്യങ്ങളും ഒരുക്കികൊടുക്കേണ്ടത് അവരുടെ വീടുകളിൽ നിന്നാണ് പെൺകുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും ഏതറ്റത്തോളം അവൾക്ക് പോകാൻ പറ്റും അത്രയും ഉയരങ്ങൾ കീഴടക്കാനവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് അവളുടെ ഫാമിലിയാണ് അതുകൊണ്ടു തന്നെ എല്ലാ തര വിദ്യാഭ്യാസങ്ങളിലും എന്താണോ അവൾ ചെയ്യാനാഗ്രഹിക്കുന്നത് അവളേത് ഏത് മേഘലയിലാണോ അവളെത്തിപ്പെടാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു മേഘലയിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ഒരു ആഗ്രഹകാരിയാണ് ഞാൻ ആർക്കും ഒരു എന്താണ് നിഷേധത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിയ്ക്കണം പെൺകുട്ടിയായിക്കോട്ടെ ആൺകുട്ടിയായിക്കോട്ടെ ആരു തന്നെ വിദ്യാഭ്യാസം പാതിവഴിയിൽ നിർത്തുന്നുണ്ടൊ മറ്റുള്ളവരുടെ പ്രേരണമൂലം പാതിവഴിയിൽ നിർത്തുന്നുണ്ടോ അവരെല്ലാം തൻ തൻ്റെ ഒറ്റ കരുത്തുകൊണ്ട് അത് അതിനെ ഇല്ലാതാക്കി മുന്നോട്ട് വരണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് ഇഷ്ടങ്ങൾക്ക് കൂട്തൽ പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു മുൻപോട്ട് പോകണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരുടേയും എതിർപ്പോ വികാരങ്ങളോ ഒന്നും മാനിക്കാതെ തൻ്റെ ഏതുയരം എത്ര ഉയരത്തോളം തനിക്ക് പോകണം അത്രത്ത അത്രയും ഉയരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് മുന്നോട്ടു പോകണം എന്നാണ് എൻ്റാഗ്രഹം